നമ്മൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ താമരശ്ശേരിയാണ് താമരശ്ശേരിന്നു പറഞ്ഞ കഴിഞ്ഞാല് അവിടെ പർവ്വതങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതായത് വയനാട്ടിലേക്കു പോകുന്നിടത്ത് ചുരവും കാര്യങ്ങളുമൊക്കെയാണ് അത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നല്ല രീതിയിലുള്ള ഹൈറ്റും കാര്യങ്ങളുമൊക്കെ ഉള്ളൊരു മലയും കാര്യങ്ങളുമൊക്കെയാണ് നമുക്ക് അതിന്റെ മേളിലു പോയിക്കഴിഞ്ഞാല് വ്യൂയും കാര്യങ്ങളുമൊക്കെയാണ് നമ്മള് കോഴിക്കോട് ജില്ലയിലെ ഏകദേശം ഭാഗം നമ്മടെ താമരശ്ശേരിന്റെ കുറച്ചു കാര്യങ്ങളൊക്കെ നമുക്കു വേണമെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ലൊരു വ്യൂ പോയിന്റും കാര്യങ്ങളുമൊക്കെ അപ്പോൾ നമ്മൾ അതിനെ അവിടെയുള്ളവരെയോകെ വിളിക്കുക എന്ന പറഞ്ഞാല് നമ്മളെ താമരശ്ശേരിന്റെ തൊട്ടടുത്തല്ല പക്ഷെ എന്നാല് അതിനെ പേരിട്ടേക്കുന്നത് താമരശ്ശേരി ചുരം എന്നാണ് താമരശ്ശേരിയിൽ നിന്ന് നമുക്ക് ഒരു പത്തിരുപത് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഈ ചുരത്തിലേക്ക് പോകാൻ നല്ല ഒരു രസമാ ആ ചുരം ഒക്കെ കയറി പോകാൻ വേണ്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ആൾകാർ അവിടെ കാണാൻ വേണ്ടിട്ടൊക്കെ വരുന്നുണ്ട് നല്ല കോട നിറഞ്ഞിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ ഒക്കെയാണ് പിന്നെന്നു പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ഇവിടെ അടുത്തുതന്നെ തുഷാരഗിരി വാട്ടർഫാൾസ് ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിട്ട് നമ്മൾ ഇതേപോലെ മലയൊക്കെ കയറിയിട്ട് പോകണം ആ നല്ലൊരു ഭംഗി നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ പോയിട്ട് കുളിക്കാനും വെള്ളച്ചാട്ടം ആസ്വദിക്കാനൊക്കെ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതൊക്കെ നല്ല രീതിയിൽ പ്രശസ്തമായിട്ടുള്ളൊരു സ്ഥലങ്ങളാണ് ഈ രണ്ടെണ്ണവും